ഈ അച്ചടി മാധ്യമങ്ങളായ പത്രം മാസികയെന്നിവ അച്ചടിച്ച് നമ്മുടെ കയ്യിൽ വരുമ്പോഴത്തേക്കും ഒരു ദിവസം എന്തായാലും ഒരു ദിവസത്തെ പഴക്കം കാണും അതേസമയത്ത് സോഷ്യൽ മീഡിയയായ ദൃശ്യസ്രാവി മാധ്യമങ്ങളാണെങ്കിൽ നമ്മൾക്ക് അന്നേരം തന്നെ നമ്മളുടെ വിരൽത്തുമ്പിലെത്തും ഇപ്പോഴത്തെ മോഡേൺ കാലം തന്നെ അത് നമുക്ക് തെളിവാണ് ഇന്നിപ്പോൾ നടന്ന ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിലത് പരന്നു കഴിയും അപ്പോൾ നമുക്ക് തന്നെയുമല്ല അച്ചടിച്ചുവരുന്ന കാര്യം നമ്മൾക്ക് ജീവനുള്ളതല്ല നമുക്ക് സോഷ്യൽ മീഡിയ എന്നുപറയുന്നത് ചലിക്കുന്നത് നമുക്ക് അപ്പോൾ തന്നെ കണ്ടുകൊണ്ടിരിക്കാം അപ്പോഴത് ചലിക്കുക ഒരു ജീവനുള്ള ന്യു വാർത്തയായോ അല്ലെങ്കിൽ സംഭവമായിരിക്കും നമ്മുടെ മുന്നിലേക്ക് എത്തപ്പെടുന്നത് ജീവനുള്ളവയ്ക്ക് എപ്പോഴും ജീവൻ കാണും അത് നമ്മുടെ ഉള്ളിൽ പതിയുകയും മനസ്സിലാകാൻ എളുപ്പവുമായിരിക്കും അതുകൊണ്ടുതന്നെയായിരിക്കും ഇപ്പോൾ സ്കൂളുകളിൽ വിദ്യാഭ്യാസം പോലും മീഡിയ വഴി നടത്തുന്നത് കാര്യം ദൃശ്യ ശ്രവണ മാധ്യമങ്ങളാകുമ്പോഴത്തേക്കും ഒന്നു ഒന്നുകൂടെ നമ്മുടെ മനസ്സിൽ പതിയാനൊക്കെ കൂടുതൽ സാധ്യതകളുണ്ട് അതുകൊണ്ടുതന്നെ മാധ്യമങ്ങളായ പത്രവും മാസികയൊക്കെ മാസികയെന്ന് പറയുമ്പോഴത്തേക്കും ഡെയ്ലി വരത്തില്ല അത് മാസം ആഴ്ച്ചകളിലായിരിക്കും ആഴ്ച്ചപ്പതിപ്പാണെങ്കിൽ ആഴ്ച്ചകളിലായിരിക്കും മാസവരികളാണെങ്കിൽ മാസത്തിലായിരിക്കും വരുന്നത് അപ്പോഴൊരു കാര്യം അച്ചടിച്ച് അത് നമ്മുടെ കയ്യിലെത്തുമ്പോൾ കാലതാമസം വരും പക്ഷേ അത് തന്നെ ഇപ്പോഴത് നമുക്ക് ക്യാപ്സൂളുകളാക്കി അല്ലെങ്കിൽ ബ്രീഫായി ഇതായിട്ടും എല്ലാം നമ്മളുടെ വിരൽ തുമ്പിൽ എത്തിച്ചേരുന്നു അപ്പോൾ അതുകാരണം ചാനൽ വാർത്ത ചാനലുകളാവുമ്പോഴത്തേക്കും നമുക്കിപ്പം ഇന്നിവിടെ എന്ത് സംഭവം നടക്കുന്നു ഇന്ന് എന്നല്ല അതു ലോകത്തിൻ്റെ ഏത് കോണിലും സംഭവങ്ങൾ നടന്നെന്നാൽ നിമിഷനേരങ്ങൾക്കുള്ളിൽ നമുക്കതറിയാൻ പറ്റുന്നു അതുപോലെ തന്നെ ഒരു പ്രകൃതിക്ഷോഭം അതൊരു മുന്നറിയിപ്പ് നമ്മൾക്ക് തരണമെങ്കിൽ മാധ്യമം ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മളിലേക്ക് അപ്പോൾ തന്നെ എത്തും പക്ഷേ ഒരു ദൃശ്യ പത്രവും മാസിക അച്ചടിച്ചു വരുന്ന മാസികയോ പത്രമോ വഴിയാണെങ്കിൽ അത് രണ്ടു പിറ്റേ ദിവസമേ നമ്മുടെ കയ്യിൽ നമ്മുടെ അറിവിലേക്ക് എത്തിച്ചേരത്തുള്ളൂ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ ജലപ്രളയം ഉണ്ടായപ്പോൾ തന്നെ നമുക്ക് അലേട്ട് തരാനും ഓരോ കാര്യങ്ങളിലും ഇപ്പോൾ ഡാം തുറന്നുവിടുന്നത് എല്ലാം നമുക്ക് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെയാണ് നമുക്കത് കൂടുതൽ എല്ലാം കാണാനും കേൾക്കാനും നമുക്ക് അതിന് അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും ഒക്കെ പറ്റിയത് അതുകൊണ്ട് ഈ പത്രം അച്ചടിച്ചു വരുന്നത് ഒരു പഴങ്കഞ്ഞി കുടിക്കുന്നതിനു തുല്യമായി പോകും അതേസമയത്ത് സോഷ്യൽ മീഡിയ എന്നു പറയുമ്പോഴത്തേക്ക് നമ്മൾ ചൂട് ചോറ് കഴിക്കുന്നത് പോലെയായിരിക്കും പിന്നെ തന്നെയുമല്ല സോഷ്യൽ മീഡിയാവുമ്പം ഇപ്പോൾ എല്ലാവരും കൈകാര്യം ചെയ്യുന്ന ഒരു മാധ്യമം തന്നെയാണ് അതുകൊണ്ട് ആരും അറിയപ്പെടാതെ പോകുന്നില്ലത് അത് സോഷ്യൽ മീഡിയ തന്നെയാണ് ഏറ്റവും നല്ലതെന്നുള്ളത് ആണ് എൻ്റെ വിശ്വാസം